ആറ് അഞ്ച് രണ്ടായിരത്തിയിരുപത്തി മൂന്ന് ഏഴ് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തിയിരുപത്തി മൂന്ന് ഒൻപത് മൂന്ന് രണ്ടായിരത്തി രണ്ട് ഒൻപത് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിയാറ്